ആ അതെ അതെ ആ ആ അഡ്മിഷൻ എടുക്കാനാണോ ആ പറഞ്ഞോളൂ അതെ അതെ ആ അപ്പം ആ ഇവിടെ ഫസ്റ്റ് ഫീസ് മാസം ഏകദേശം ട്വന്റി ഫോറിന്റ അടുത്ത് വരും കാരണം അത് മൊത്തം ഇപ്പം നമുക്ക് ഇവിടെ ഹോസ്റ്റൽ അടക്കം ഉണ്ട് അപ്പം ഫുഡും എല്ലാം മൊത്തം ചെലവായിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പഠിച്ചിട്ട് വേറെ ഹോസ്റ്റലും നോക്കാം ഹോസ്റ്റൽ വേറെ റേറ്റ് കുറവുള്ളത് നോക്കാം പക്ഷെ ഫുഡ് വെള്ളം ഇതെല്ലാം പ്രശ്നം വരും അവിടെ അവിടെ വാടക കുറവായിരിക്കും പക്ഷെ ഫുഡിന്റെ ഇതെല്ലാം വളരെ മോശവായിരിക്കും നമ്മുടെ നമ്മുടെ ഇതായത് കൊണ്ട് പറയുന്നതല്ല അങ്ങനെയൊരു പ്രശ്നം വരും കാരണം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നത് ആയിരിക്കും നല്ലത് പിന്നെ ഇപ്പം ആ അതെ അതെ അപ്പോൾ ആ ആ ആ പഠിച്ചതാണല്ലേ ആ ശരിയല്ലേ ആ അപ്പം എന് ഫർസ്റ്റ് ഇയർ എവിടെയാണ് കംബ്ലീറ്റ് ചെയ്തത് അതേ അല്ലേ അവിടെ അടിപിടിയിൽ വല്ലതും ആണോ പ്രശ്നമാക്കിയിട്ടാണോ വരുന്നത് ആ ആ അതെ അതെ ആ അതെ അതെ

ആ കുഴപ്പമില്ല നമുക്ക് ഇവിടെ വന്നിട്ട് ബാക്കി ഡീറ്റേയില്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നാൽ മതി എപ്പോഴത്തേക്കാണ് വരുന്നത് ആ പെട്ടെന്ന് വന്നോളൂ കാരണം ഇവിടെ ഇപ്പം തന്നെ ഏകദേശം ലിസ്റ്റ് ഫുള്ളായിട്ടുണ്ട് രണ്ട് മൂന്ന് പേര്ക്കും കൂടെയേ ബാക്കി അവിടെ ചാൻസ് ഉള്ളു പേരന്റ്സ് കൊണ്ടുവന്നോളു പേരന്റ്സ് വേണം അതെ അഡ്മിഷന് ഫീസ് നമുക്ക് വന്നിട്ട് സംസാരിക്കാം കാരണം ഓരോ ബാച്ചിന്റെത് ഫണ്ട് വ്യത്യാസം ഉണ്ട് എന്നാൽ ഓക്കെ കേട്ടോ വരുമ്പോൾ വിളിക്ക്